ഹലോ ആ മാഡം പറഞ്ഞോളൂ ഓക്കെ മാഡം എങ്ങനെയാണ് ഈ ചുമ മാത്രമേ ഉള്ളോ തോന്നുന്നുണ്ടല്ലേ മാഡം എങ്ങനെ എവിടെ നിന്ന് എന്തേലും പുറത്ത് എന്തേലും പോയിരുന്നോ ക്വാറൻറ്റിനിൽ ആയിരുന്നു അപ്പോൾ ആരേലുമായിട്ട് സമ്പർക്കമുണ്ടോ മാഡത്തിന് കയറ്റിയിട്ടില്ലല്ലേ വീട്ടിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെയെന്തേലും ആ ഓക്കെ ക്വാറൻറ്റിനിൽ ആയിരുന്നല്ലേ ആഹ് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തേലുമുണ്ടൊ ഉണ്ടല്ലെ ഓക്കെ അപ്പോൾ മാഡം നന്നായിട്ട് ഫുഡ് കഴിക്കണം കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി പവറ് കിട്ടണമെങ്കിൽ നല്ല ഫുഡ് വേണം ഒത്തിരി നല്ല നല്ല രീതിക്ക് ഫുഡ് കഴിക്കുക പിന്നെ പാരസെറ്റാമോള് അങ്ങനെയെന്തേലുമൊക്കെ റെഫർ ചെയ്യാനേ എനിക്കും പറ്റുകയുള്ളു കാരണം നമുക്കിപ്പോൾ ഇതിനായിട്ട് ഒരു മരുന്ന് ഇതുവരെ ആയിട്ടില്ല മാഡം വാക്സിനൊക്കെ എടുത്തായിരുന്നോ എത്ര ഡോസ് എടുത്തായിരുന്നു ഒന്നേ എടുത്തിട്ടുള്ളു അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് പാരസെറ്റാമോള് എന്തേലും കഴിക്കാം എന്നിട്ട് റസ്റ്റ് എടുക്കുക പുറത്തുനിന്ന് ആരുമായിട്ടും അങ്ങനെ ഓവർ സമ്പർക്കം വേണ്ട റൂമിൽത്തന്നെ ഇരുന്നാൽ മതി പിന്നേ മാസ്ക്കൊക്കെ പരമാവധി യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം മാസ്ക് യൂസ് ചെയ്തിട്ടൊക്കെ സംസാരിക്കുക പിന്നേ എന്താ പറയുക കയ്യൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് സാനിറ്റൈസ് ചെയ്യണം കാരണം നമ്മൾ റൂമിൽ നിൽക്കുകയാണെങ്കിലും അതിൻ്റെ അണുക്കളൊന്നും പുറത്തേക്ക് ഇങ്ങനെ ഇതാവാതിരിക്കാൻ വേണ്ടീട്ട് ശ്രദ്ധിക്കണം പിന്നെ വസ്ത്രങ്ങളൊക്കെ എന്താ പറയുക സ്വന്തം തന്നെ കഴുകി അലക്കി വിരിക്കുക പിന്നേ മാഡം അവിടെ കംഫേർട്ടാണോ നമുക്ക് ഏതേലും ക്യാമ്പിലേക്കോ അങ്ങനെ എന്തിലേക്കെങ്കിലും മാറണോ ആ കുഴപ്പമൊന്നൂല്ലല്ലേ ഓക്കെ മാഡം എന്തായാലും ചെക്ക് ചെയ്തിട്ട് വിളിച്ചാൽ മതി കേട്ടോ എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ നിൽക്കേണ്ട കേട്ടോ ഓക്കെ മാഡം പേരെന്തായിരുന്നു അമൃത അല്ലേ സ്ഥലം എവിടെയാ മാനന്തവാടിയല്ലെ പുറത്തൊന്നും പോവണ്ട